എൻ്റെ കുടുംബക്കാരൊക്കെ വീട്ടിൽ വന്ന്കഴിഞ്ഞാൽ അവർ വരുന്നത് എന്നോട് വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവർ വരുമ്പോൾ കഴിക്കേണ്ട ഭക്ഷണമെല്ലാം ഞാൻ ആക്കിവയ്ക്കും പിന്നക്കെ അവർ വന്ന് ഇവടെ താമസിച്ച് കഴിഞ്ഞു തമാസിക്കുകയാണെങ്കി നമ്മൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ് ഭക്ഷണമെല്ലാം ഉണ്ടാക്കുക ഒരുമിച്ച് കറിക്ക് അരിയും ഞാൻ കറിക്ക് അറിയുകയാണെങ്കിൽ മറ്റുള്ളവർ തേങ്ങ ചിരവും മറ്റുള്ളവർ പാത്രം കഴുകും മറ്റുള്ളവർ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ പണിയായിട്ട് ചെയ്ത് നമ്മൾ ഒരുമിച്ച് എല്ലാം ചെയ്ത് ഭക്ഷണമെല്ലാം നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ടാക്കി കഴിച്ച് ചിരിച്ച് ഉല്ലസിച്ചിട്ടെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കലെല്ലാം അവർ വരുന്നതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല അടിച്ചുപൊളി ആയിരിക്കും അപ്പോൾ പിന്നെ അവർ വിളിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായിരിക്കും അന്ന് എനിക്ക് വീട്ടിൽ ഞാനും കുട്ടികളും ആയിട്ട് നിൽക്കുമ്പോൾ കുടുംബക്കാരെല്ലാം വന്ന് ഉല്ലസിച്ച് കളിച്ച് ചിരിച്ച് ഡാൻസും പാട്ടും എല്ലാം ആയിട്ട് ഇങ്ങനെ നടക്കുകയും ഭക്ഷണം ഉണ്ടാക്കുകയും നമ്മൾ പുറത്ത് പോവുകയും അങ്ങനെ എല്ലാം ആണ് നമ്മൾ അടിച്ച് പൊളിക്കുക